ഞങ്ങളുടെ പ്രദേശത്ത് കലയെ സംരക്ഷിക്കാൻ വായനശാലകളും ബാലസംഘവും രൂപീകരിക്കുകയും ഉത്സവവും പള്ളികളിലും പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ പഞ്ചായത്ത് മേളകള് കലോത്സവം നടത്തുകയും കേരളോത്സവം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ആളുകളെ കൂടുതൽ പങ്കെടുപ്പിക്കുകയും ചെയ്ത് കലയെ പ്രോത്സാഹിപ്പിക്കുന്നു ഓണാഘോഷ പരിപാടി അങ്ങനെ ഉള്ള പരിപാടികൾക്കും കൂടുതൽ പരിപാടിൾ വെക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും കലയെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു